പെട്രോളിൻ്റെ വില വർദ്ധന ഭയങ്കര രീതിയിൽ പിന്നെ ആൾക്കാരിൽ ബാധിക്കാറുണ്ട് നമുക്ക് പിന്നെ പെ വലിയ പെട്രോൾ ഒഴിച്ച് വണ്ടി ഒന്നുമില്ലാത്തതുകൊണ്ട് വലിയ സീൻ ഒന്നുമില്ല നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുന്ന ആൾക്കാരാണ് പിന്നെ അമിതമായിട്ടുള്ള ഇന്ധനത്തിൻ്റെ ഉപയോഗം കാരണം പൊലൂഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അതിൻ്റെ പുകയൊന്നു പിന്നെ ശ്വസിച്ചാൽ പല തരത്തിലുള്ള അസുഖം ശ്വാസകോശത്തിൽ പല രീതിയിലുള്ള അസുഖം നമുക്ക് വരും അപ്പം അതൊക്കെ സാധാര എല്ലാവർക്കും ബുദ്ധിമുട്ടാകും സാധാരണക്കാർക്ക് എന്നല്ല കൊറോണ വന്നേ പിന്നെ എല്ലാവർക്കും കുറച്ച് വീക്കാണ് ബോഡി ഒക്കെ മ് പണ്ടത്തെപ്പോലെ പണിയെടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര ശ്വാസംമുട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഇത് വരുമ്പം നമുക്ക് കുറേ ബുദ്ധിമുട്ടു വരും അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെ രീതിയിൽ ബാധിക്കും ഹാനികരമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഈ സൈക്കിലിംഗ് പോലെ പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് സ്കൂട്ടർ ഇലക്ട്രോണിക്ക് കാർ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിലോട്ടു കൊണ്ടുവരണം അല്ലാതെ ഈ പെട്രോളും ഡീസലും തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വരും തലമുറയ്ക്ക് ആണ് അത് ദോഷം ചെയ്യുന്നത് നമ്മൾ അത് ചിന്തിക്കേണ്ട കാര്യമാണ് വില ഭയങ്കര കുതിച്ചുയരുകയാണ് ദിവസം ചെല്ലുന്തോറും അതിന് വില കുതിച്ചുയരുകയാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും നമുക്കാണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടു ചിന്തിക്കണം